മാലിന്യനിർമാർജജനം ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടു വന്ന ഒരു പദ്ധതിയാണ് സ്വച്ച് ഭാരത് അഭിയാൻ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത് മാലിന്യനിർമാർജ്ജനം ചെയ്യുന്നതിനായിട്ട് ആധുനികമായിട്ടുള്ളതും ശാസ്ത്രീയ പരമായിട്ടുള്ളതും പല പ്രക്രിയകളും കൊണ്ടു വന്നിട്ടുണ്ട് ഇത് ജനങ്ങൾ നല്ല രീതിയിൽ ഏറ്റെടുത്തുവെന്ന് വിചാരിക്കുന്നു നമ്മളുടെ വീടും പരിസരവും വൃത്തിയായിരിക്കണം എന്നാലെ നമുക്ക് അസുഖങ്ങൾ ഇല്ലാണ്ടിരിക്കൂ അങ്ങനെയുള്ള തോന്നലുകളെല്ലാം ഇന്ന് ജനങ്ങൾക്ക് ഉണ്ട് അതുമല്ല നമ്മൾ വീടുകളിൽ ഉള്ള മാലിന്യങ്ങൾ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക്കുകൾ കുപ്പികൾ ഇങ്ങനെയുള്ള എല്ലാം കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ആളുകൾ വരും ചാർജ് അവരത് എടുത്ത് അത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവരത് വേറൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റും അപ്പം അങ്ങനെയുള്ള സൗകര്യങ്ങളും നമുക്ക് ഇന്നുണ്ട് നമുക്കത് പുറത്തേക്ക് വലിച്ച് എറിയണ്ട എൻ്റെ എൻ്റെ ചുറ്റുമുള്ള പ്രദേശത്തെല്ലാം ഇതാണ് അവർ അവർ വരും എല്ലാ മാസവും വരും അപ്പം നമ്മൾ ഈ പ്ലാസ്റ്റിക് ആയാലും കുപ്പി ചില്ല് ആയാലും തെർമോക്കോൾ എന്ത് എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് ആവശ്യമില്ലാത്തത് അത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കൊണ്ടു പോയിക്കോളും എന്നാലും ഇതും കൊടുക്കാൻ മടിയുള്ള ആൾക്കാരും ഉണ്ട് പിന്നെ എനിക്ക് ഒരു മെച്ചപ്പെടുത്തേണ്ടതായിട്ട് തോന്നിയിട്ടുള്ളത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു തോടുണ്ട് ഈ തോട്ടിലെ കൂടി മറ്റുള്ള മാലിന്യങ്ങൾ ഒലിച്ചു വരുന്നുണ്ട് പ്ലാസ്റ്റിക് കുപ്പികൾ ഭക്ഷണ വേസ്റ്റ് അത് അതിലൊരു ഒരു മാറ്റം ഉണ്ടാകണം എന്ന് വിചാരിക്കുന്നു